നമ്മളുടെ അടുക്കളയിലെ ഉപകരണങ്ങളിൽ

ഒരു സമയം നമുക്ക് വ വലിയ ഇല്ലാത്തൊരു നമുക്ക് പറയാൻ പറ്റില്ല പറ്റത്തില്ല എന്നാന്ന് വെച്ചാൽ നേരിത് പണ്ടൊക്കേന്ന് പറഞ്ഞാൽ അര കല്ലിലൊക്കെ അരയ്ക്കുവായിരുന്നു ഇപ്പം ആ ഒരു പരിപാടിയേ ആരും അരയ്ക്കുന്ന ആ ഒരു പരിപാടി ഇല്ലല്ലൊ എല്ലാവരും

നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുക അതാണ് എല്ലാവരും അല്ലാതെ പണ്ടൊക്കെ അര അരകല്ലേലരച്ചും അങ്ങനൊക്കെയായിരുന്നു അതാണോ ഇപ്പോഴും ടേസ്റ്റ് പക്ഷേ അതിൽ അതാരും ഇപ്പോഴത്തെ കാലത്ത് ആരും ഉപയോഗിക്കാറില്ല എല്ലാവരും മിക്സിയിലും അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ മിക്സി ഇല്ലാതെ വരുന്നവർ ഒരു ദിവസം നമുക്ക് പറ്റത്തില്ല എന്നാച്ചാൽ അത് എങ്ങനെങ്കിലും അത് എന്തെങ്കിലും കേടായി പോകുമ്പോൾ നമ്മളത് അന്ന് തന്നെ പോയൊന്ന് റെഡിയാക്കാൻ സാധിക്കും ക വി വീട്ടിലെ അരയ്ക്കാനാണേലും കറികൾക്കാണേലും

അങ്ങനെ